ആശ്പത്രികൾ എന്ന് പറയുമ്പോൾ പിന്നെ പ്രൈവറ്റുമുണ്ട് പിന്നെ ഗവൺമെൻ്റ് ആശുപത്രിയുണ്ട് പിന്നെ ക്ലിനിക്കുകളുണ്ട് പ്രൈവറ്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയി ഒപി പോയി ചീട്ട് എടുത്ത് ഡോക്ടർക്ക് ടോക്കൻ എടുക്കണം ടോക്കൺ എടുത്തു കഴിഞ്ഞു ഡോക്ടറുടെ സമയത്ത് ഡോക്ടറുടെ അവിടെ പോയിരിക്കണം ഡോക്ടറ് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പം താമസിച്ചെങ്കിൽ വേറെ ആൾക്കാരെ വിളിക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നാൽ തന്നെ വലിയ വി ഐ പ്പികൾ വന്നു തലക്ക് കയറി ഇരുന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചേച്ച് പോവും ഗവൺമെൻ്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ അവിടെ ക്യു നിൽക്കണം ചാർജ് കുറവാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അവിടെ നേരിടുന്നത് പിന്നെ ക്ലിനിക്കുകളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സമയം പോലെ വൈകുന്നേരം ആണെങ്കിലും ഡോക്ടറെ പോയി കാണാം അവിടെ നിന്ന് തന്നെ മരുന്നും കുറിച്ച് തരികയും അവർക്ക് പറ്റുന്ന മരുന്നുകളൊക്കെ നമുക്ക് തരികയൊക്കെ ച്ചെയ്യും പ്രൈവറ്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ചാർജ് കൂടുതലാണ് അതായത് എന്നാൽ ഒരു രൂപ വാങ്ങിക്കേണ്ട ഇടത്ത് രണ്ട് രൂപ വാങ്ങിച്ച് അവർ കാര്യങ്ങൾ നടത്തുന്നു അവിടെ വൃത്തിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ ഗവർമെൻ്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണണമെങ്കിൽ ക്യു നിൽക്കണം അതുവല്ല ഡോക്ടറ് കാണുന്ന അടുത്ത പേഷ്യൻ്റ് നമ്മുടെ പുറകേ നിൽക്കുമ്പം അവർ നമ്മൾ ഡോക്ടറോട് സംസാരിക്കുന്നതെല്ലാം കേൾക്കുകയും കാണുക എല്ലാം ചെയ്യും അതുകൊണ്ട് അടച്ചുറപ്പുള്ള ഇടം മിക്കവാറും ഗവൺമെൻ്റ് ആശുപത്രികളിൽ ഇല്ല പിന്നെ മരുന്നുകൾകൊക്കെ എല്ലാം അവർ പുറത്തോട്ട് കുറിച്ച് തരും അതെല്ലാം നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിക്കണം അവിടെ നിന്ന് വല്ല പാരസെറ്റമോളോ വല്ലതും തന്നെങ്കിൽ തന്നെ അത്രയേ ഉള്ളു ഗവൺമെൻ്റ് ആശുപത്രിയുടെ കാര്യങ്ങൾ വൃത്തിയുടെ കാര്യത്തിൽ ഗവൺമെൻ്റ് ആശുപത്രി ഒത്തിരി പുറകോട്ടാണ് അതായത് എന്ന കെപ്പും കാടും കയറിയും ശുദ്ധം ഇല്ലായ്മയും എല്ലാം കൊണ്ടും ഗവൺമെൻ്റ് ആശുപത്രി പറഞ്ഞാൽ അത്രയ്ക്ക് അഭിപ്രായം പറയാനുള്ള ഒന്നുമില്ല അതേ സമയം പ്രൈവറ്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല നീറ്റ് ആണ് പിന്നെ നമ്മൾ രോഗികൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും എവിടെ ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻ്റ് ആണേലും ജനങ്ങൾ തന്നെയാണ് അതെല്ലാം വൃത്തികേടാക്കുന്നതും നശിപ്പിക്കുന്നതും സൂക്ഷിക്കാതെയും എല്ലാം ചെയ്യുന്നതും ചപ്പുചവറുകൾ വലിച്ച് എറിയുകയും തുപ്പുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ മാലിന്യങ്ങളൊക്കെ ആവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ജനങ്ങൾ തന്നെയാണ് എല്ലാം വൃത്തികേടാക്കുന്നതും പിന്നെ മരുന്ന് മെഡിസിനൊക്ക ഭയങ്കര എന്നാൽ ചാർജ് ആണ് പ്രൈവെറ്റിൽ എല്ലാത്തിനും ജി എസ് ടിയും എസ് ജി എസ് ടിയും എല്ലാം വാങ്ങിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കിന്ന ഒരു പരിപാടികളുണ്ട് അതായത് ഒരു രൂപാ പോലും പ്രൈവറ്റിൽ മരുന്നിന് കുറച്ച് കുറച്ച് തരത്തില്ല ക്ലിനിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് സമയം പോലെ പോവോ വൈകുന്നേരം ആണേലും പോയാൽ ഡോക്ടറെ കാണുവോ ഡോക്ടറുടെ വീടുകളിൽ പോയി ഡോക്ടറെ കണ്ടു സംസാരിക്കുകയൊക്കെ ചെയ്യാം ഇപ്പം പുറത്ത് നാട്ടിൽ ലണ്ടനിലെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്താൽ രണ്ടും മൂന്നും ആഴ്ച്ച കഴിഞ്ഞേ ഡോക്ടറെ നമുക്ക് കാണാൻ പറ്റത്തുള്ളു അപ്പോയിൻമെൻ്റെ് എടുത്താൽ തന്നെ അപ്പോഴത്തേക്കും നമ്മുടെ രോഗങ്ങൾ എല്ലാം മാറും അതാണ് അവിടെ പുറത്തുള്ള രാജ്യങ്ങളിലെ അവസ്ഥ നമ്മുടെ കേരളത്തിൽ ആണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ വയ്യായ്ക വന്നാലും ഗവൺമെൻ്റ് ആശുപത്രിയോ പ്രൈവറ്റിലോ ക്ലിനിക്കിലോ ഒക്കെ പോയി ഡോക്ടറെ കാണുവോ അതിൻ്റേതായ ചികിത്സ ചെയ്യാനൊക്ക സാധിക്കും അല്ലാതെ പിന്നെ എവടെയും പോയി ക്യു നിൽക്കണം പ്രൈവറ്റിൽ പോയി ടോക്കൺ എടുക്കണം ക്യു നിൽക്കണം ഗവൺമെൻ്റിൽ പോയി ടോക്കൺ എടുക്കണം ക്യു നിൽക്കണം മരുന്നിന് ക്യു നിൽക്കണം എല്ലാം മനുഷ്യർക്ക് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തുന്ന പരിപാടികളാണ് പിന്നെ അസുഖം വന്നാൽ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ജനങ്ങൾ പോകുന്നു സേവനമെന്ന് പറയാൻ പ്രൈവറ്റിലൊക്കെ കാശ് മുടക്കി ചെയ്യുന്നത് കൊണ്ട് ഒട്ടുമുക്ക സർവീസുകളും കുഴപ്പം ഇല്ലാതെ പോകുന്നു ഗവൺമെൻ്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടം പോലെയാണ് എന്നാന്ന് വച്ചാൽ ചെയ്യുന്നു അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്യണം അല്ലാതെ നമ്മൾ പറയുന്ന പോലെ അവർക്ക് ചെയ്യാൻ ഒരു ഇഷ്ടവും ഇല്ല എല്ലാ ഇടത്തും കാശാണ് പ്രശ്നം എല്ലാ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഇതായിട്ട് കരുതുന്നു ഒരു പാവങ്ങൾ ചെന്നാലും അതിൻ്റേതായ ഒരു പരിഗണനയൊന്നും ഒരു ആശുപത്രികളിലും കൊടുക്കത്തില്ല ഗതി കെട്ടിട്ടാണ് ഓരോരുത്തർ എന്നാൽ ഗവൺമെൻ്റ് ആശുപത്രിയിൽ പോകുന്നത് പ്രൈവറ്റിൽ അഞ്ച് പൈസ കുറച്ച് കൊടുക്കത്തില്ല ഗവൺമെൻ്റ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞാൽ അവർ അത് പുറത്തോട്ട് നമ്മൾക്ക് കുറിച്ചു തന്ന് നമ്മളെ കാശ് മുടക്കി വാങ്ങിപ്പിക്കും അവിടെ ഉണ്ടേത്തന്നെ അവർ തരത്തില്ല അതൊക്കെയാണ് ഗവൺമെൻ്റും പ്രൈവറ്റുമൊക്കെ ആയിട്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതായാലും എത്രയും നല്ലത് പ്രൈവറ്റിൽ തന്നെ പോവുന്നതാണ് കാര്യങ്ങൾക്ക് ഒരു ഒരു നീക്ക് പോക്കും ഉണ്ട്